ഹലോ ആ ഇത് വൈറ്റ് പാലസ് ഹോട്ടൽ അല്ലേ അ അ എൻ്റെ പേര് പ്രിയ ഞാൻ രണ്ട് ദിവസം മുമ്പ് അവിടെ സ്റ്റേ ചെയ്തിരുന്നു അ ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒപ്പമായിരുന്നു അ അന്ന് ഈവെനിംങ് ആയിരുന്നു ഞാൻ വന്നിരുന്നതേ ആ രാത്രി കറണ്ട് പോയിരുന്നു അപ്പോൾ എ സിയും ഫാനും ഒന്നും വർക്ക് ആയിരുന്നില്ല ആ ഞാൻ റിസെപ്ഷനിലേക്ക് കോള് ചെയ്തിരുന്നു പക്ഷെ ആരും എടുത്തില്ല അ ഓക്കെ താങ്ക് യു ആ അതുമാത്രല്ല പിറ്റേ ദിവസം രാവിലെ ബാത്റൂം ബാത്റൂമില് വെള്ളം വരുന്നുണ്ടായിരുന്നില്ല ആ ഞാനും മ ആ ഞാനും അവിടെ സ്റ്റേ ചെയ്യാറുള്ളതാണ് സ്ഥിരം കസ്റ്റമർ ആണ് ഇതുവരെ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷെ ഈ ലാസ്റ്റ് ടൈം ടു ഡേയ്സ് മുമ്പ് വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി വെള്ളം ഉണ്ടായിരുന്നില്ല കറണ്ട് ഉണ്ടായിരുന്നില്ല ടി വി വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മൊത്തത്തിൽ ഉറക്കവും ശരിയായില്ല അപ്പ അത് വിളിച്ച് പ്രയാണം എന്നുണ്ടായിരുന്നു ആ ഇറ്റ്സ് ഓക്കെ അത് കുഴപ്പമില്ല എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതൊക്കെ നല്ല സർവിസ് ആയിരുന്നു അവിടുന്ന് ഇപ്പം ഇങ്ങനെയൊരു ഇഷ്യൂ വന്നപ്പോൾ അത് അറിയിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അറിയിച്ചത് ആ നെക്സ്റ്റ് മന്ത് ആയാലും എനിക്കങ്ങോട്ട് വരണം എന്നുണ്ട് ഞങ്ങൾ എപ്പോഴും സ്റ്റേ ചെയ്യാറ് അവിടെത്തന്നെയാണ്

അ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു വന്നിരുന്നത് പക്ഷെ ഇപ്രാവശ്യം എന്തു പറ്റി എന്ന് അറിയില്ല അ ഓക്കെ പിന്നെ അതുപോലെ ഇപ്പം ഫുഡ് ആയാലും കോഫി ആയാലും റൂമിലേക്ക് എത്തിക്കില്ലേ ആ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എനിക്കതും പറ്റിയിരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ടൈം ഫുഡ് എല്ലാം കറക്

അ ആ ഓക്കെ താങ്ക്സ് ഓക്കെ താങ്ക് യു ഇതൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യാൻവേണ്ടി വിളിച്ചതായിരുന്നു അ ഓക്കെ ഓക്കെ ബൈ